ഇപ്പോൾ എൻ്റെ ആ ഒരു അവിസ്മരണീയമായിട്ടുള്ള ഒരു നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ബീച്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന പല രീതിയിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം ചെയ്യുന്നുണ്ട് അപ്പം നല്ല രീതിയിലുള്ളൊരു പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ ആ ബീച്ചിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് കാരണമെന്ന് വച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ ഞങ്ങൾ എന്നെ വിളിക്കാറുണ്ട് അപ്പം നമ്മള് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ആൾക്കാരും ഉണ്ടാവും അപ്പം അതിന് നമ്മൾ കൂടുതലായിട്ടും നല്ല രീതിയിലുള്ള ഒരു പരിപാടി കാഴ് കാഴ്ച്ച വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഒരു പ്രോത്സാഹനവും കിട്ടും നമുക്ക് എപ്പോഴും പ്രാക്ടീസും കാര്യങ്ങളുമൊക്കെ ലഭിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ആൾക്കാരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടോന്നൊക്കെ അറിയാനും പറ്റും അങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ബീച്ചിൽ നടക്കുന്നുണ്ട് പിന്നെ ബേപ്പൂർ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഞാൻ ഇതേപോലെ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് തന്നെ ചില ഏരിയ ഏരിയകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗാനമേളയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും ചില അമ്പലങ്ങളിലൊക്കെ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതിനൊക്കെ വിളിക്കാറുണ്ട് അപ്പം നല്ല രീതിയിലുള്ള ഒരു നൃത്തങ്ങള് കാഴ്ച വെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്